എനിക്ക് പഴയ യേശുദാസ് പാടിയ പാട്ടുകളാണ് ഇഷ്ടം പഴയ പാട്ടുകളാവുമ്പോൾ ഞാൻ അത് എന്ത് ചെയ്യും എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വരുമ്പോൾ ഞാൻ അത് റിക്കാർഡ് ചെയ്ത് വയ്ക്കാറുണ്ട് അത് വീണ്ടും വീണ്ടും പാടി കേട്ട് കേട്ട് നടക്കാറുണ്ട് എല്ലാ പഴയ പാട്ടുകളോടും എനിക്ക് ഭയങ്കര ചില പാട്ട്കളുണ്ട് നല്ല രസമായിട്ട് പാടാൻ പറ്റുന്ന പാട്ടുകൾ അത് യേശുദാസ് പാടിയ പാട്ടുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് മുമ്പേയുള്ള പാട്ടുകളിലാണ് കൂടുതലും കമ്പം അങ്ങനെ പാടുന്ന പാട്ടുകൾ ഞാൻ ചില അവസരങ്ങൾ മക്കൾക്ക് പാടി കൊടുക്കാറുണ്ട് എൻ്റെ കൊച്ചു മോനാണെങ്കിൽ അമ്മൂമ്മ പാടിത്തരൂ നോക്കട്ടേ എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ള പാട്ടുകൾ ഇനിയും ഇനിയും കേൾക്കണം